ഉച്ചയൂണിനും അത്താഴത്തിനുമായി സാധാരണ ഞങ്ങൾ പാചകം ചെയ്യാറുള്ളത് എന്തൊക്കെയെന്നാൽ ദിവസവും എന്തായാലും ചോറ് ഉണ്ടായിരിക്കും ഉച്ചയൂണിനും അത്താഴത്തിനും ചോറ് നിർബന്ധമാണ് കൂടാതെ എന്തെങ്കിലും ഫിഷ് ഐറ്റംസോ മീൻകറി പോലെ മുളകിട്ട മീൻകറിയോ തേങ്ങ അരച്ച മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മീൻ വറുത്തതും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ബീൻസ് ബീൻസ് അല്ലെങ്കില് ബീറ്റ്റൂട്ട് ക്യാബേജ് തുടങ്ങിയ എന്തെങ്കിലും പച്ചക്കറികൾ ഉപയോഗിച്ച് തോരന് മെഴുക്കുപുരട്ടി അങ്ങനെ എന്തെങ്കിലും തോരൻ കറിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ദിവസങ്ങളില് ഉച്ചയൂണിനും അത്താഴത്തിനും എല്ലാമായി മോര് കറിയും രസവും അങ്ങനെ പരിപ്പ് ചാറ് അങ്ങനെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉച്ചയൂണിനും അത്താഴത്തിനുമായി പാചകം ചെയ്യാറുണ്ട് നിർബന്ധമായും ചോറും മീൻകറിയും എന്തായാലും ഉണ്ടാകും